മാര്ക്കെറ്റിങ് രംഗത്ത് വിപ്ലവം തീര്ത്ത സോഷ്യല് മീഡിയ അതിന്റെ ജൈത്ര യാത്ര തുടരുകയാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരധികവും സോഷ്യല് മീഡിയ നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷന് ടാലെൻടുണ്ടെങ്കില് യുറ്റ്യൂബറ് സോഷ്യല് മീഡിയാ മാനേജര് ഒക്കെ ആകാം നല്ല രീതീല് കമ്മ്യൂണിക്കേയ്റ്റ് ചെയ്യാൻ കഴിയണം അതുപോലെ ക്രിയേറ്റിവിറ്റി അതൊരു കഴിവാണ് കൂടുതല് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാന് ഇപ്പോൾ യൂറ്റ്യൂബെറാണെങ്കില് അവർ സാധാരണയില് നിന്നും അല്പം വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് അവതരിപ്പിക്കാൻ കഴിയണം അതുപോലെ ബ്ലോഗെഴ്തുന്നത് അത് നല്ലൊരു വരുമാന മാര്ഗ്ഗമാണ് ഡിജിറ്റല് മാര്ക്കെറ്റിങ് അതൊക്കെ നവമാധ്യമങ്ങളിലൂടെയുള്ള ഒരു വിപണന തന്ത്രങ്ങളാണ് പിന്നെ ഓണ്ലൈന് പത്ര വാര്ത്തകള് ഉല്പന്നങ്ങളുടെ ബ്രാൻടിങ്ങ് ബ്രാൻടിങ്ങ് രീതികള് പരസ്യങ്ങള് എന്നിവ പുതിയ പുതിയ സാധ്യതകളാണ്